വൻകിട കാർഷിക സംരംഭങ്ങളിൽ നിന്നുള്ള മത്സരങ്ങൾ ഗ്രാമീണ മേഖലയിലെ ചെറുകിട കർഷകരെ എങ്ങനെയാണ് ബാധിച്ചിട്ടുള്ളത് വലിയ രീതിയിൽ തന്നെ അത് ബാധിക്കും വൻകിട കർഷകർ എന്ന് പറഞ്ഞാൽ അവർ വലിയ തോതിൽ അതായത് വലിയ വലിയ കച്ചവടങ്ങളും വ്യാപാരങ്ങളും ഒക്കെ നടത്തുന്ന ആൾക്കാരായിക്കാലും ഗ്രാമീണ മേഖലയിലെ ചെറുകിട കർഷകർ എന്ന് പറഞ്ഞാൽ അവർ അവരുടെ ജീവിത മാർഗ്ഗത്തിന് വേണ്ടിയിട്ട് ചെറിയ തോതിൽ ആരംഭിച്ച ചെറിയ ചെറുകിട വ്യവസായങ്ങൾ അതായത് കുടിൽ വ്യവസായങ്ങൾ അങ്ങനെ പോലുള്ള ചെറിയ ചെറിയ രീതിയിലുള്ള കച്ചവടങ്ങളായിരിക്കും പക്ഷേ വൻകിട കർഷകർ എന്ന് പറഞ്ഞാൽ അവർ വലിയ വലിയ സംരഭങ്ങൾ അവർ വലിയ കൂട്ടായ്മകളൊക്കെ ഉണ്ടാക്കി വലിയ വ്യവസായിക മേഖലകളിലൊക്കെ ഉയർന്ന നിൽക്കുന്ന ആൾക്കാരായിരിക്കും അവർക്ക് അവരുടേതായ നിലയിലുള്ള രീതിയിലുള്ള എല്ലാ കച്ചവടങ്ങളും ചെയ്യുമ്പോൾ അതായത് അവരുടെ ലാഭത്തിന് വേണ്ടിയിട്ട് അവർ കുറേയേറെ കുറച്ച് വില കുറച്ചും അങ്ങനെ പല പല ഓഫറുകൾ അങ്ങനൊക്കെ ചെയ്യുമ്പോൾ ഈ ചെറുകിട കർഷകർക്ക് ചിലപ്പം ഓഫറുകൾ ചെയ്യാനും അതായത് അങ്ങനെ ഉള്ള ഇതൊന്നും ചെയ്യാൻ കഴിയുക കഴിയത്തില്ല അവർക്ക് അവരുടെ ജീവിത മാർഗ്ഗം എന്ന രീതിയിലാണ് അവർ ആ കച്ചവടം ചെയ്യുന്നത് പക്ഷേ വൻകിട കർഷകർ എന്ന് പറഞ്ഞാൽ അവർ വലിയ സംരംഭമായിട്ട് ചെയ്യുന്നൊരു കാര്യമായിരിക്കും അത് അവർക്ക് അവരതിൽ നിന്ന് ഒരുപാട് ലാഭം കണ്ടെത്തുകയും അവർക്ക് അതിൽ നിന്ന് ഒരുപാട് ജോലിക്കാരുണ്ടാകും അങ്ങനെയൊക്കെ വലിയ വലിയ അവരുടെ തൊഴിലിൻ്റെതായ രീതിയിൽ മുൻ ജി എസ് ടി ഒക്കെ കൊടുത്ത് അങ്ങനൊക്കെ ചെയ്യുന്ന ആൾക്കാരായിരിക്കും ചെറുകിട കർഷകർ എന്ന് പറഞ്ഞാൽ അവർ അവരുടെ അന്നന്ന് വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ കുടുംബം നിലനിർത്താൻ വേണ്ടിയിട്ട് അല്ലേൽ കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് മക്കളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്ന ചെറിയ ചെറിയ രീതിയിലുള്ള കച്ചവടങ്ങളോ അതാണ് ഈ പപ്പടം അതേപോലെ വാഴ വാഴ വാഴകൃഷി ചെയ്യുന്നത് വാഴക്കുല വെട്ടി അങ്ങനെയുള്ള ചെറുകിട കർഷകർ എന്ന് പറഞ്ഞാൽ ചെറിയ തോതിൽ ചെയ്യുന്ന ഓരോരോ തൊഴിൽ കൊണ്ട് അവരുടെ ജീവിതമാർഗ്ഗത്തിനുള്ള വഴിയാണ് മറ്റേത് എന്ന് പറഞ്ഞാൽ വൻകിട കാർഷിക സംരംഭം എന്ന് പറഞ്ഞാൽ തന്നെ അത് അവർ വലിയ രീതിയിൽ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും അവർക്ക് അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കി അവർക്ക് ജോലിക്കാരെ വെച്ച് അവർ ജി എസ് റ്റി കൊടുത്ത് അവർ എല്ലാ രീതിയിലും മുന്നോട്ട് പോകുമ്പോൾ അവർ അങ്ങനെ ചെയ്യുമ്പോൾ അവരുടെ അടുത്ത് പോലും എത്താനായിട്ട് ചെറുകിട കർഷകർക്ക് കഴിയത്തില്ല അവർ ഗ്രാമീണ മേഖലയിൽ ചെറുതായിട്ട് ചെയ്യുന്ന ചെറുകിട കർഷകർ മാത്രമായിരിക്കും അവർക്ക് അവരുടെ ഒപ്പം എത്താനോ അവരുടെ ഇതിനെക്കാട്ടിൽ മുകളിലോട്ട് കയറാനോ ഒന്നും സാധിക്കത്തില്ല അവർക്ക് അവരുടേതായ ചെറിയ ചെറിയ രീതിയിൽ അപ്പം അവരുടെ കച്ചവടങ്ങൾ കുറയും അവരുടെ ആ വരുമാനം കുറയും അവർക്ക് അതിൽ നിന്ന് മുന്നോട്ട് കയറി വരാൻ ഒരുപാട് താമസങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകും അതൊക്കെ തരണം ചെയ്ത് എന്നാലും അവരുടെ ജീവിത മാർഗ്ഗമെന്ന നിലയിൽ അവർ അതിനെ മുന്നോട്ട് കൊണ്ട് പോകുക തന്നെയാണ് ചെയ്യുന്നത്